മലയാള ഭാഷ എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചപ്പം തന്നെ കേട്ട് വരുന്ന ഭാഷയാണ് ഈ മലയാള ഭാഷ അത് ഏറ്റവും അ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഭാഷ എന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഈ മലയാള ഭാഷ മലയാള ഭാഷ ഈ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ മലയാള ഭാഷ പിന്നെ അ ഇപ്പോൾ കുറേ ഇന്ത്യക്കാരും ഈ മലയാള ഭാഷയെ മറന്ന് പോകുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ

നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ മലയാള ഭാഷ

ഈ മലയാള ഭാഷ തന്നെയാന്ന് നമുക്ക് ഏറ്റവും ഉചിതമായ ഭാഷയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഷയായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാവരും മലയാള ഭാഷയെ ഇഷ്ടപ്പെടുക